എനിക്ക് അതായത് പത്രം വായിക്കുന്നത് എത്ര തവണ കുട്ടികളെ പ്രോത്സാഹിപ്പിക്കാറുണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ആദ്യമൊക്കെ അതായത് ഇപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് പത്തിരുപത്തിമൂന്ന് വയസായി ഒരാൾക്ക് ഇരുപത്തിമൂന്ന് വയസുമായി ഒരാൾക്ക് പിന്നെ ഇരുപത്തെട്ട് വയസുമായി അപ്പം ആദ്യകാലത്തൊക്കെ എന്നുവെച്ചാൽ ചെറുപ്പത്തിലൊക്കെ എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ മലയാളം ആണല്ലോ ആദ്യം വായിക്കുമ്പം ആദ്യമൊക്കെ അന്നത്തെക്കാലത്തൊക്കെ എൻ്റെ വീട്ടിൽ പത്രം ഒക്കെ വരുത്തുവായിരുന്നു അതായത് ദേശാഭിമാനി അങ്ങനെയുള്ളതൊക്കെ അപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് മെയ് വലിയ മെയിൻ ഹെഡിങ്ങുകളൊക്കെ വായിച്ച് കൊടുക്കും അതായത് ഇങ്ങനെ അവരുടെ വിരൽ തൊട്ട് വെച്ച് ഇങ്ങനെ ഓരോന്ന് ഓരോന്ന് വായിക്കും പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ അതായത് ഒരു മൂന്നാം ക്ലാസ് ഒക്കെ ആവുമ്പോഴ്ത്തേക്കും അവർ നല്ലോണം മലയാളം വായിക്കാൻ തുടങ്ങി പിന്നെ അവരിങ്ങനെ ഓരോന്ന് കാണുമ്പം ഇതാ ഇതിങ്ങനെയാണോ വായിക്കുന്നത് അമ്മേ അങ്ങനെയൊക്കെ ചോദിക്കും പിന്നെ അത് കഴിഞ്ഞ് കുറെ കഴിയുമ്പോൾ ഇപ്പോൾ കുറെക്കാലം കഴിഞ്ഞവർ പത്രമൊക്കെ എൻ അതായത് പിന്നെ പിന്നെ എനിക്ക് കണ്ണ് കാണാണ്ടായി കുറച്ച് അതായത് ആ ഒരു പ്രായം എല്ലാം കഴിഞ്ഞ് ഒരു അവർക്കൊരു ഇരുപത് ഇരുപത്തൊന്ന് വയസ്സൊക്കെ ആകുമ്പോഴ്ത്തേക്കും കണ്ണ് കാണാണ്ട് മീൻസ് അതിങ്ങനെ കുറെ വായിക്കുമ്പം കണ്ണിങ്ങനെ മങ്ങിപോവുന്ന ഒരു അവസ്ഥയായി അപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻ ഹെഡിങ് ഒക്കെ വായിക്കും പിന്നെ ഈ ചെറിയ ചെറിയ അക്ഷരങ്ങൾ ആയിരിക്കുവല്ലോ അപ്പം അത് കുറെ വായിക്കും വായിക്കുന്നേന് വലിയ പ്രശ്നമൊന്നൂല്ല പക്ഷേ നമ്മളിങ്ങനെ ഒറ്റ ഇരുപ്പിൽ വായിക്കുമ്പം കണ്ണ് എന്തോ മങ്ങുന്ന പോലെയാവും അങ്ങനത്തെ പ്രശ്നമുണ്ട് അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുല്ല പിന്നെ പിന്നെ അവർ അപ്പം വായിച്ച് വായിച്ച് തരാൻ തുടങ്ങി